ആ ഇത് മറ്റേ ടൂർ ഏജൻസി അല്ലെ ആ അത് എൻ്റെ പേര് അശ്വിൻ അപ്പോൾ ഞങ്ങളൊര് പത്ത് പേര് അടുത്ത മാസം ഒന്ന് ഗോവ വരെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വല്ല പായ്ക്കേജിനെ പറ്റിയൊന്ന് അന്വേഷിക്കാനായിരുന്നു ആ ഞങ്ങള് ജൂൺ സെക്കൻഡ് വീക്കായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഒര് പതിനായിരത്തില് ഒതുങ്ങുന്ന പാക്കേജ് ഒക്കെ ഉണ്ടാവുകയില്ലേ

ആ ഫൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പത്ത് പതിനായിരത്തിന് ഉള്ളിൽ ഒതുങ്ങില്ലെ ആ ഞങ്ങൾക്ക് ഫുഡും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഒര് പാക്കേജ് ആയിരുന്നു വേണ്ടത്

അപ്പോൾ ട്രാവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഒര് ട്രാവലർ ആയിരിക്കുമോ അതോ റെൻറ്റിന് വല്ല കാർ എടുക്കുന്ന ടൈപ്പ് ആയിരിക്കുമോ

ആ അ ആ അപ്പോൾ ഈ ഗോവയിൽ എത്തുന്നത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരുമോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളായിട്ട് അറേഞ്ച് ചെയ്ത് ഗോവയിൽ എത്തിയിട്ട് പാക്കേജ് ആ ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് കയറേണ്ടത് അപ്പോൾ എത്രാം തിയതി ആയിരിക്കും അവൈലബിള് ട്രെയിൻസൊക്കെ ടിക്കറ്റക്കെ കിട്ടുന്നത്

ഓക്കെ ആ ആണല്ലെ ആ പിന്നെ ഈ നിങ്ങള് നമ്മുടെ സ്റ്റേയിൻറ്റ അടുത്ത് തന്നെ ബീച്ച് ഒക്കെ ഉണ്ടാകുമോ ആ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാകുമോ

ആ അത് കൊള്ളാം എന്നാൽ

ആ എന്നാൽ

ആണല്ലേ എന്നാൽ അങ്ങനത്തെ ഒരു റിസോർട്ട് പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തോളു ഫുഡ്ഡും വേണേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് എത്രയാകും എന്നൊരു എസ്റ്റിമേറ്റിട്ടിട്ട് ഒന്ന് അയക്കാമോ ആ മതിയോ അപ്പോൾ ഒന്ന് ഫൈനലൈസ് ചെയ്ത് ഞങ്ങള് പിന്നെ അറിയിക്കാം

ആ ഇവിടെ നിന്നുള്ള ട്രെയിനും റിട്ടേണും ഉള്ളതൊന്ന് നോക്കിക്കോളു അതും പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തോളു ഹേ ഫ്ളൈറ്റ് വേണ്ട ട്രെയിന് മതിയാവും ഏ സി ത്രീ ടയറ് മതിയാവും ആ പിന്നെ ഫുഡ്ഡ് വെജ്ജും നോൺ വെജ്ജും അവൈലബിൽ അല്ലെ ആ ഓക്കെ ശരി എന്നാൽ താങ്ക്യു